സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ പ്രധാനമായിട്ടും ഫേസ് ബുക്കിലോ വാട്സ്പ്പിലൊക്കെയാണ് ഞാൻ കൂടുതലും ഫോട്ടോഗ്രാഫികളും ഫോട്ടോഗാഫികള് പോസ്റ്റ് ചെയ്യാറുള്ളത് കുറച്ച് കാലം മുമ്പ് വരെ വളരെ കൂടുതൽ ഫോട്ടോഗ്രാഫികൾ ഡൗൺ ലോഡ് ചെയ്യും അപ്പ് ലോഡ് ചെയ്യും ചെയ്യുന്ന ചെയ്യുമായിരുന്നു പക്ഷേ അടുത്ത കാലത്തായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഫോട്ടോകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു ആർക്കും അക്സിസിബിളാകുന്നു ആർക്കുമത് എൻ്റെ ഫേസ് ബുക്കിൽന്ന് എവിടെ നിന്ന് വേണേലും വേറൊരാൾക്കാരുടെ ഫോട്ടോസ് എടുക്കുകയും ഉപയോഗിക്കുയും അത് വേറൊരു വേർ അവർക്കുചിതമാകുന്ന രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ കുറച്ച് അടുത്തുന്ന് ആളുകൾ കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ കുറവായിട്ട് മാത്രമേ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുള്ളു അതിൻ്റെ പുറകിലുള്ള കാരണമിതാണ് പിന്നെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തന്നെ അത് വാട്സ്പ്പിൽ നമ്മുടെ ഏറ്റോം അടുത്ത അടുത്ത ആൾക്കാർക്ക് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മാത്രം അത്യാവശ്യമുള്ള ഫോട്ടോഗ്രാഫികൾ മാത്രം പ കൈമാറുന്ന ഒരു രീതിയിലേക്ക് ഞാനൊതുങ്ങിയിട്ടുണ്ട്

പൊതുമാധ്യമങ്ങളിൽ ഫോട്ടോഗ്രാഫികളോ ഫോട്ടോസോ ഞാൻ ഒരിക്കലും പോസ്റ്റ് ചെയ്യാറില്ല ഇപ്പോൾ